നമസ്കാരം ഞാന് അശോക് അപ്പോള് സാംസ്കാരിക പൈതൃകം സംരക്ഷിക്കുന്നതിന് മലയാളത്തിന്റെ പങ്കിനെക്കുറിച്ച് പറയാൻ ഞാന് പറയാന് പോകുന്നത് അപ്പോൾ ബാക്കിയുള്ള സംസ്ഥാനങ്ങളെപ്പോലെ അല്ലെങ്കില് ഒരു പക്ഷെ അതിനേക്കാള് കൂടുതല് പൈതൃകം സംരക്ഷിച്ച് വരുന്നവരാണ് മലയാളികള് അതില് ഒരു മലയാളികള്ക്കും തര്ക്കമില്ലാത്തൊരു കാര്യമാണ് അപ്പോൾ അത് ആ എളുപ്പം ചെയ്യുന്നത് അല്ല അതിന് കുറേ കാര്യങ്ങള് ചെയ്യേണ്ടതുണ്ട് പക്ഷെ അതില് വലിയൊരു പങ്ക് അത് വഹിക്കുന്നത് മലയാളം ഭാഷയാണ് ഇപ്പോള് നമ്മളറിയാതെ തന്നെ നമ്മുടെ കുറേ സംസ്കാരം അങ്ങനെ മലയാളം ഭാഷയിലൂടെ സംരക്ഷിക്കപ്പെട്ട് പോകുന്നുണ്ട് അപ്പോൾ ഇപ്പം വേറെ ഒരു ഭാഷ സംസാരിക്കുന്ന ഒരു സംസാരിക്കുന്നിടത്ത് വളര്ന്ന ഒരു മലയാളി ഒരിക്കലും നമ്മുടെ മലയാളികളെ പോലെയല്ല നമുക്ക് അവരെ കാണുമ്പം തന്നെ വ്യത്യാസം മനസ്സിലാകും അതിനു വലിയൊരു കാരണമാണ് ആ മലയാള ഭാഷയിലുള്ള വ്യത്യാസം മലയാള ഭാഷ സംസാരിക്കുന്നതിലൂടെ നമുക്ക് തനിയെ കുറേ സംസ്കാരം നമ്മളില് വന്നു ചേരുന്നതാണ് ഇപ്പോള് നമ്മുടെ വീട്ടിൽ അച്ഛനും അമ്മയും നിന്ന് പഠിക്കുന്ന മലയാളം ആയതുകൊണ്ട് നമുക്ക് അവരുടേതില് നിന്നും കുറേ സംസ്കാരം നമ്മുടെ കയ്യിലേക്ക് വരും വരുന്നതാണ് അതിന്റെ ഒപ്പം അപ്പോൾ മലയാളത്തില് മലയാളത്തിന്റെ പങ്ക് നമുക്കങ്ങനെ എഴുതിത്തള്ളാന് പറ്റുന്നതല്ല ഒരു പക്ഷെ സംസ്കാരം സംരക്ഷിക്കുന്നതില് ഏറ്റവും വലിയ പങ്ക് വഹിക്കുന്നത് മലയാളം തന്നെയാണ് നമ്മള് മലയാളം പഠിക്കും സ്കൂളുകളില് മലയാളം പഠിക്കുമ്പോള് തന്നെ നമ്മള് നമ്മളറിയാതെ നമ്മള് നമ്മുടെ മുമ്പ് താമസിച്ച ജീവിച്ചിരുന്ന മലയാളികളുടെ സംസ്കാരം നമ്മളിലേക്ക് എത്തിച്ചേരുന്നുണ്ട് മലയാളം നമ്മുടെ ഒരു ജീവിതത്തിന്റെ ഒരു ഭാഗമാണ് മലയാളികള്ക്ക് നമ്മള് അതുകൊണ്ടുതന്നെ മലയാളികൾ എവിടെ പോയാലും മലയാളം സംസാരിക്കുക സംസാരിക്കുന്നത് അതുകൊണ്ടു തന്നെയാണ് നമ്മുടെ സംസ്കാരം അപ്പോൾ നമ്മള് ഒരിക്കലും കൈവിട്ട് പോകില്ലെന്ന് നമുക്ക് വിശ്വാസമുള്ളതുകൊണ്ടാണ് നമ്മള് അപ്പോഴും മലയാളം ഉപേക്ഷിക്കാതെ കൊണ്ടുനടക്കുന്നത് മലയാളികളുടെ സംസ്കാരം അതുപോലെ സൂക്ഷിക്കുന്നതുകൊണ്ടാണ് മലയാളികള് എപ്പോഴും വലിയ വിജയി വിജയികൾ ആവുന്നതെന്ന് ആണ് എനിക്ക് മനസ്സിലായിരിക്കുന്നത് അപ്പോൾ ഇപ്പോൾ ഈ അടുത്ത കാലങ്ങളില് മലയാളം നമ്മള് മലയാളത്തോടുള്ള മതിപ്പ് നമ്മളില് കുറഞ്ഞു വരുന്നതായി നമ്മള് കണ്ടുവരുന്നുണ്ട് അതുകൊണ്ടുതന്നെ അതു നമ്മുടെ സംസ്കാരവും കുറഞ്ഞു വരുന്നത് അതുകൊണ്ടുതന്നെയാണ് അപ്പോള് നമ്മള് മലയാളം ഭാഷയെ ഒരിക്കലും തള്ളിക്കളയരുത് നമ്മള് അതിന് മുമ്പത്തെപ്പോലെയോ അല്ലെങ്കില് അതിനേക്കാള് നന്നായോ നമ്മളതിനെ പഠിക്കുകയും അറിയാനും ശ്രമിക്കേണ്ടതാണ് മലയാളം സംസാരിക്കാതെ മലയാളികളില്ല എന്നതാണ് സത്യം നമ്മള് ഒരിക്കലും മലയാളം കൈവിടാന് പാടുള്ളതല്ല